ഹലോ പറയൂ അതേ കുറ്റിക്കാട് ഫർണീച്ചർ ഷോപ്പാണ് എന്താണ് വേണ്ടത് ആ മ് ഓക്കെ ആ ഓക്കെ നല്ലൊരു ടൈമിലാണ് താങ്കൾ വിളിക്കുന്നത് ഈ ഒരു സമയം എന്നുള്ളത് ഞങ്ങൾ നല്ല ഓഫറുകൾ നൽകുന്ന സമയമാണ് പറയൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഓ പറഞ്ഞ് തരാം ഞങ്ങൾ ടേബിളിലൊക്കെ ഞങ്ങൾ ഇരുപത്ട്ട മുപ്പതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫർ പ്രൈസ് താങ്കൾക്ക് ഇവിടെ വന്നിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഒരു ധാരണയിൽ എത്താം എത്താം പിന്നെ കട്ടിൽ ഞങ്ങൾ കൊടുക്കുന്നത് മുപ്പത് മുപ്പത്തഞ്ച് അ റേഞ്ചിലാണ് പോകുന്നത് പിന്നീട് ഞാൻ ഈ വാതിലൊക്കെ ഒരു കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് അതൊര് ഇരുപത് ഇരുപത്തി അഞ്ച് ആ ഒരു ആസ്പാസിൽ വരും പിന്നെ ടേബിൾ ടേബിലാണ് ഏറ്റവും സിംമ്പിളായിട്ട് റേറ്റ് കുറവുള്ളത് ഏകദേശം അഞ്ച് ടു പത്തിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഞങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏത് ഡിസൈനാണോ വേണ്ടത് ആ രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ അതേ ഞങ്ങളുടെ ഇവിടെ പ്ലാവ് അതുപോലെ തേക്ക് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങളുടെ കുറ്റിക്കാട് ഫർണിച്ചർ അറിയപ്പെടുന്നത് തന്നെ നിങ്ങൾ കൊണ്ട് വരുന്ന വുഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ എന്താക്കും അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് മനസിലായില്ല ആ ആ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളെ ഞങ്ങൾ കൊടുക്കാറുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഗ്യാരൻണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ അവിടെ വന്ന് തന്നെ ഞങ്ങൾ എന്താക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ നിങ്ങൾ അയച്ച് തന്നാൽ ആ രീതിയിൽ ഞങ്ങൾ എന്താക്കും നിങ്ങൾക്ക് പറയുന്ന നിങ്ങൾ കൊണ്ട് വരുന്ന വുഡ് കൊണ്ട് എന്താകും നിങ്ങൾക്ക് ഏത് ഡിസൈൻ ആണോ വേണ്ടത് ആ രീതിയിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയ വർക്ക് വർക്കേഴ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ അവർ പത്ത് നൂറ് വർഷങ്ങൾക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ തന്നെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ മാറ്റം അല്ലെങ്കിൽ കുറവ് ആണെന്ന് വിചാരിക്കേണ്ട പക്ക സാധനം ആയിരിക്കും ഓ ഞങ്ങൾ സോഫയുടെ റേറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തി മൂന്ന് ടു നാൽപ്പതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സോഫ വേണോ ആ രീതിയിൽ നമുക്ക് റേറ്റ് അഡ്ജസ് ചെയ്യാം എനിക്ക് തോന്നുന്നു താങ്കൾക്ക് കുറേ സാധനം വാങ്ങാൻ ഉള്ളത് കൊണ്ട് താങ്കൾ ഈ ഷോപ്പിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാനും ക്വാളിറ്റി മനസ്സിലാക്കാനും സാധിക്കും താങ്കൾ ഷോപ്പിലേക്ക് കുറ്റിക്കാട്ട് തന്നെയാണ് ടൗണിൽ തന്നെയാണ് ഷോപ്പ് അ അവിടേക്ക് വരികയാണെങ്കിൽ ഇനിയും കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം ഓ നാളെ പത്തര മുതൽ മൂന്നര വരെ ഓപ്പൺ ആണ് അതായത് നാളെ തന്നെ പണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും സുഖമായിരിക്കും ഓ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ